ആ ആ അതെ പറഞ്ഞോളൂ

അറിയാൻ വേണ്ടിയിട്ട് ആണല്ലേ നമുക്ക് ആദ്യം ഇപ്പം ലോൺ കാര്യങ്ങൾ ഒക്കെ എടുത്തിട്ടുണ്ടോ നിങ്ങൾ പാസ് ആയിട്ടുണ്ട് അല്ലേ ഓക്കെ നല്ലൊരു സ്ഥലവും കാര്യങ്ങൾ ഒക്കെ നമ്മൾ തിരഞ്ഞെടുക്കുക നമുക്ക് ഇപ്പം എന്താണ് പറയുക അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പ് കാര്യങ്ങൾ ഒക്കെ ഉള്ള ഒരു സ്ഥലങ്ങൾ ഒക്കെ നോക്കി തിരഞ്ഞെടുക്കണം അങ്ങനെയുള്ള സ്ഥലം ആണോ നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആണല്ലേ ഓക്കെ ആ ഓക്കെ ഓക്കെ നിങ്ങൾ ഇപ്പോൾ ഒരെണ്ണം ഒരു സെക്ഷൻ സെക്ഷൻ ആയിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വലിയ ലാഭമോ കാര്യങ്ങൾ ഒന്നും ഉണ്ടാവില്ല ഒരു അഞ്ച് ആറ് എണ്ണം ഒക്കെ തുടങ്ങുവാണെങ്കിലേ പ്ലാൻ ചെയ്യുന്നുണ്ടല്ലേ ആ ഓക്കെ അങ്ങനെ ആണെങ്കിലേ നിങ്ങൾക്ക് ലാഭവും കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവുള്ളൂ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കിട്ടുന്ന അത്രയും പൈസ തന്നെ അതിന് ചിലവ് ആക്കാനെ ഉണ്ടാവുള്ളൂ അപ്പം നിങ്ങൾ നല്ല രീതിയിൽ ഷെഡ് കാര്യങ്ങൾ ഒക്കെ അടിപൊളി ആയിട്ട് കെട്ടുക ചുറ്റും മറയ്ക്കണം കാരണം വേറെ ജീവികളോ കാര്യങ്ങൾ ഒന്നും വരാണ്ട് നോക്കണം ഒന്നാമത്തെ അതാണ് ആ അപ്പം നല്ല രീതിയിൽ ചുറ്റിനും മറച്ചതിന് ശേഷം മാത്രം ഫുൾ മറയ്ക്കുക നെറ്റ് വെച്ചിട്ട് മറച്ചാൽ മതി ഉള്ളിലേക്ക് എയർ കടക്കാൻ പാകത്തിന് രീതിയിൽ ഉള്ള സജ്ജീകരണം കാര്യങ്ങൾ ഒക്കെ ചെയ്യണം പിന്നെ നമ്മളെ ഇതില്ലേ നമ്മുടെ അറക്കപ്പൊടി അറക്കപ്പൊടി അടിയിൽ നമ്മൾ വിതറണം അതായത് നമ്മൾ സിമന്റ് ഇട്ടേക്കുന്നതിന്റെ ആ ഫുൾ ആയിട്ട് അറക്കപ്പൊടി വിതറിയത്തിന് ശേഷം മാത്രമേ നമ്മൾ കോഴി കുഞ്ഞുങ്ങളെ റെഡി ആക്കാൻ പറ്റുള്ളൂ കോഴി കുഞ്ഞുങ്ങൾ ഇഷ്ടം പോലെ സ്ഥലങ്ങളിൽ ലഭ്യമാണ് അപ്പം നിങ്ങൾ റേറ്റ് കുറച്ച് കിട്ടുന്ന എവിടെ ആണോ അവിടെ ചെന്നിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ആ അതെ അതെ അങ്ങനെ വാങ്ങിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ലാഭവും കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവുള്ളൂ പിന്നെ ആ അത് നമുക്ക് ഇവിടെ കോഴിക്കോട് ടൗൺ ആ കോഴിക്കോട് ടൌണിൽ തന്നെ നമുക്ക് ഇവിടെ ലഭ്യമാണ് ഞാൻ അതിൻ്റെ നമ്പർ ഞാൻ വാട്ട്സ്ആപ്പ് ചെയ്തുതരാം അവർ അവരും ആയിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് എത്തിച്ച് തരുന്നത് ആയിരിക്കും അവർ റേറ്റും കാര്യങ്ങൾ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് തരും കുഴപ്പം ഒന്നും ഇല്ല പിന്നെ പിന്നെ അതിന് ഫാൻ കാര്യങ്ങൾ അപ്പം നമ്മൾ ഏത് സമയവും നമുക്ക് അവിടെ ലൈറ്റ് കാര്യങ്ങൾ ഒക്കെ വേണം അപ്പം നിങ്ങൾ കറണ്ട് എടുക്കാൻ ഉള്ള സജ്ജീകരണങ്ങളും കാര്യങ്ങൾ ഒക്കെ ചെയ്യുക പറഞ്ഞിട്ടുണ്ട് അല്ലേ ഓക്കെ ഓക്കെ ആ അത് ഞാൻ നമ്പർ അയച്ചുതരാം അവരും ആയിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കറക്റ്റ് ടൈമിൽ ഫുഡ്ഡ് കറക്റ്റ് ടൈമിൽ കൊടുക്കണം നമ്മൾ ഒരു നേരം വൈകി കഴിഞ്ഞാൽ പിന്നെ ഇപ്പം കാലാവസ്ഥ മാറുന്നതിന് അനുസരിച്ച് അതിന് ഇപ്പം ചൂടുള്ള കാലാവസ്ഥയിൽ ആണെങ്കിൽ ഫാൻ കറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ കോഴി കോഴികൾ പെട്ടെന്ന് ചത്ത് പോവാനും കാരങ്ങങ്ങൾ ഒക്കെ വരും അപ്പം അങ്ങന കുറേ പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വേറെ പ്രശ്നം കാര്യങ്ങൾ ഒന്നും ഇല്ല ഞാൻ ആ നമ്പർ ഞാൻ വാട്ട്സ്ആപ്പ് ചെയ്തേക്കാം ഓക്കെ ഓക്കെ ഞാൻ ഓക്കെ ഓക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി